ചേരുവകളുൾപ്പടെ ഒരു വിഭവം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേരുവകളുൾപ്പടെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ കറി തന്നെ പറയാം ചിക്കൻ നമുക്ക് പല തരത്തിൽ വെക്കാമല്ലോ ഓരോരുത്തർ വെക്കുന്നത് ഒരോ ടേസ്റ്റ് ആയിരിക്കും ഓരോരുത്തരുടെ വീട്ടിൽ വെക്കുന്നത് വ്യത്യസ്ത തരമായിട്ടായിരിക്കും അപ്പോൾ ഞാൻ എങ്ങനെയാ വെക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് അതായത് അത് കഴുകി നല്ല വൃത്തിയാക്കി അതിൻ്റെ ബ്ലഡ് കാര്യങ്ങൾ ഒക്കെ കളഞ്ഞിട്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് എല്ലാം കൂടി പുരട്ടി വെച്ച് കുറച്ച് നേരം അതായത് റസ്റ്റ് റസ്റ്റ് വെക്കും റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു അര മണിക്കൂർ എങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഉപ്പ് മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ആ ചിക്കനിൽ പിടിക്കുകയുള്ളൂ ആ ടൈം കൊണ്ട് നമ്മൾ അതിൻ്റെ മസാല കാര്യങ്ങൾ ഒക്കെ വെക്കണം അപ്പോൾ മസാല ഒക്കെ ആക്കണമെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും തക്കാളിയും കൂടി പേസ്റ്റ് ആക്കി വെക്കുക പിന്നെ ഉള്ളി വെളിച്ചെണ്ണയിൽ വഴറ്റി ആ പേസ്റ്റ് അതിലിട്ടിട്ട് പിന്നെയും വഴറ്റി നമ്മൾ നമ്മൾ ഇടുന്ന പൊടികളൊക്കെ നമ്മൾ നല്ലവണ്ണം ചൂടാക്കണം ചൂടാക്കിയാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ പച്ച മണം ഉണ്ടെങ്കിൽ നമുക്കത് ടേസ്റ്റിൽ ഉണ്ടെങ്കിൽ ഉണ്ടാകില്ല നമ്മൾ അതൊക്കെ നല്ലവണ്ണം അതായത് പൊടിയിട്ട് പൊടിയിട്ട് നല്ലവണ്ണം വാട്ടി കഴിഞ്ഞതിന് ശേഷം ചിക്കൻ ഇട്ട് നല്ലവണ്ണം ചിക്കനിൽ അതായത് മൂടി വെക്കുക അത് കഴിഞ്ഞ് ചിക്കനിൽ വെള്ളം ഇറങ്ങി കഴിഞ്ഞ ശേഷം നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നല്ലവണ്ണം വെന്ത് കിട്ടും വെന്ത് കിട്ടിയാൽ അടിപൊളി ചിക്കൻ കറി റെഡി